ഹലോ ഇത് ആ അവിടുള്ള കോഫി ഷോപ്പല്ലേ ഞാൻ വിളിച്ചത് ഞമ്മക്കൊരു പരിപാടിയുണ്ടായ്ന് നിങ്ങൾ പാർസൽ സർവിസൊക്കെ നടത്തുന്നുണ്ടോ ആ വൈകുന്നേരം പരിപാടിയാണ് അപ്പോൾ എന്തൊക്കെയാണവിടെ ചായ വേണം ഞമ്മക്ക് അതിനുള്ള കടികൾ സ്നാക്സ് ഐറ്റംസ് വേണം ഏതൊക്കെ ടൈപ്പ് ചായ നിങ്ങൾ കൊടുക്കും ഒരു നാലഞ്ചു ഐറ്റം ചായ വേണം ആ മറ്റേ തൂക്കുപോലുള്ള പാത്രത്തിൽ കെറ്റിലിലിങ്ങനെ വെച്ചോണ്ട് ഡിസ്പ്ലേ ചെയ്തോണ്ടേ ആ പറഞ്ഞുകൊടുക്കണൊ അതായത് പുതിന ടീ വേണം ജിൻജർ ടീ വേണം ലൈം ടീ വേണം ബ്ലൂ ടീ വേണം ഈ നാല് ടീയും പിന്നെ സ്നാക്ക്സ് ഐറ്റംസ് എന്തൊക്കെ നിങ്ങൾ കൊടുക്കണത് ഉള്ളത് ആ റേ റേറ്റൊക്കെ എങ്ങനെയാണ് മറ്റേ വെള്ളപ്പം പൊറോട്ട നൂലപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുണ്ടോ ആ ആ അതിനൊക്കെ എന്താ റേറ്റ് വരുന്നത് പൊറോട്ട എങ്ങനെയാണ് നിങ്ങൾ ഒരു പത്തിരുന്നൂറ് ആൾക്കുള്ള പരിപാടിയാണെങ്കിൽ ഒന്നിന് എത്ര രൂപ വെച്ച് തരും ആ കുറെ ഓർഡറുണ്ടെങ്കിൽ ഡി ഡിസ്കൗണ്ടൊന്നും ഉണ്ടാവില്ലേ അയ്ക്കുള്ള കറി അയ്ക്കുള്ള കറി വേണം സൈഡ് ഡിഷായിട്ട് ചിക്കന് ചിക്കൻ നിർത്തി പൊരിച്ചത് ആ അൽഫാമും റോസ്റ്റ് ഇതൊക്കെ വേണം ചിക്കൻ അല്ല അത് ചിക്കൻറ്റുള്ളിൽ മുട്ട ഇട്ട് നിർത്തി പൊരിച്ചത് ഓക്കെ ആ ഞാനെന്നിട്ട് മെനുവായിട്ട് വിളിക്കണ്ണ്ട് ആ ഓക്കെ ശരി